ഞാനൊരു അഞ്ചാം ക്ലാസ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങിയതാണ് എനിക്ക് ചെറുതായിട്ട് ഈ വരയ്ക്കുന്ന അതായത് ചെറുതായിട്ട് ഞാനിങ്ങനെ വരച്ച് തുടങ്ങിയിരുന്നു ആനേൻ്റെ ചിത്രങ്ങളും അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ വരച്ച് തുടങ്ങിയിരുന്നു അപ്പം അത് കണ്ടപ്പം എല്ലാർക്കും നല്ല കാണാൻ ഒരു ഇഷ്ടവും അങ്ങനെയുള്ള എല്ലാം തുടങ്ങിയിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഇങ്ങനെ വരച്ചാൽ കൊള്ളാം എന്നൊക്കെ ഇണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ വര തുടങ്ങിയത് പിന്നെ വരയില് താല്പര്യം ഉണ്ടാവാൻ കാരണം എല്ലാരും നല്ലതാണെന്ന് പറയുമ്പം നമുക്കിങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ വരയ്ക്കണം നല്ല രീതിയിൽ വരച്ച് എല്ലാം കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോ അങ്ങനെയാണ് ഞാൻ വര തുടങ്ങിയത് നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാന്നുവച്ചാല് ഇപ്പ നേച്ചർ ഫോട്ടോസ് വരയ്ക്കും ഇപ്പം മല രണ്ടു മലകൾക്കിടയിലുള്ള സൂര്യനുദിക്കുന്നതാണ് ഞാൻ ആദ്യായിട്ട് വരച്ചത് അതായത് ഒരു സ്കൂളില് പെയിന്റിംഗ് കോംപറ്റീഷന് പോയിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ ആദ്യായിട്ട് ഇത് വരയ്ക്കുന്നത് അവിടുത്തെ ടോപിക് ഇതായിരുന്നു ഉദിച്ച് വരുന്ന സൂര്യൻ അപ്പം രണ്ടു മലകൾക്കിടയിലൂടെ ഉദിച്ച് വരുന്ന സൂര്യനെ ആണ് ഞാൻ ആദ്യായിട്ട് വരയ്ക്കുന്നത് അതിൻ്റെ മിറ്റത്ത് അതായത് അതിൻ്റെ സൈഡില് ഒരു വീടും ഒരു പുഴയില് പുഴയിങ്ങനെയുണ്ട് അതിനകത്ത് പുഴ പുഴയിലൂടെ ഒരു തോണിയും ഇതാണ് എനിക്കന്ന് കിട്ടിയ ടോപ്പിക്ക് അപ്പോൾ അത് ഞാൻ വരച്ചു അത് വരച്ച് കഴിഞ്ഞപ്പം എനിക്കതിനകത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടി എല്ലാർക്കും ഇഷ്ട്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ വര തുടങ്ങിയത് എനിക്കേറ്റവും ഇഷ്ട്ടുള്ള വര എന്ന് പറഞ്ഞാല് ഒരു കലാകാരനായിട്ട് തോന്നിയത് രാജരവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ്